സ്വിഗ്ഗിയല്ലേ ആ എനിക്കൊരു ഭക്ഷണം വേണമായിരുന്നു ഒരു നാല് പേർക്ക് കഴിക്കാനുള്ളൊരു നാല് ഫുൾ ബിരിയാണി വേണാമായിരുന്നു അപ്പോൾ എനിക്കൊരു രണ്ട് മണിക്ക് മുൻപ് തന്നെ ഭക്ഷണം കിട്ടണം ഇപ്പോൾ എൻ്റെ ലൊക്കേഷൻ വരുന്നത് മുണ്ടൂരാണ് നിങ്ങളെത്രയും പെട്ടന്ന് ഇതിന് വേണ്ട നടപടികൾ എടുക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ പ്രൈസ് കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു പിന്നെ അതില് എന്തെങ്കിലും ഇളവുകളുണ്ടെങ്കില് അതും പറഞ്ഞാൽ കൊള്ളാമായിരുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു പിന്നെ ഭക്ഷണം ഇപ്പോൾ നാല് ഫുൾ ബിരിയാണി ആണ് എനിക്ക് വേണ്ടത് ഇന്ന ലൊക്കേഷനിലാണ് മുണ്ടൂര് എന്ന സ്ഥലത്താണ് എനിക്ക് വേണ്ടത് മുണ്ടൂർ പാലക്കാട് അപ്പോൾ എത്രയും പെട്ടന്ന് അത് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒട്ടും വൈകരുത് വളരെ അത്യാവശ്യമാണ് ശരി എന്നാൽ